ചിത്രരചനയില് ഇപ്പോ വെല്ലുവിളി നിറഞ്ഞ വശം എന്തെന്ന് വച്ചിട്ടുണ്ടെങ്കില് മെയിന് ആയിട്ടും നമ്മളിപ്പൊ ചിത്രം ഒക്കെ വരയ്ക്കുന്നുണെങ്കിലെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതല് നമ്മള് ക്ലാസ്സിലൊക്കെ പോവണം അതായത് ചിത്രരചന ക്ലാസ്സുകളിലും കാര്യങ്ങളിലും ഒക്കെ പോയിട്ടുണ്ടെങ്കില് നമുക്ക് കൂടുതലായിട്ടും അതിനെ കുറിച്ച് അറിയാനൊക്കെ സാധിക്കുകയുള്ളൂ ഇപ്പോൾ എന്ന് വച്ചിട്ടുണ്ടെങ്കില് നമുക്ക് എല്ലാം ഫോണിലുണ്ട് അപ്പൊ നമ്മള് ഫോണിലൂടെ ഒക്കെ നോക്കീട്ടു പഠിച്ചിട്ടുണ്ടെങ്കില് നമുക്ക് വലിയ കുഴപ്പം ഒന്നുമില്ലാണ്ട് നമുക്ക് ചിത്രവും കാര്യങ്ങളും ഒക്കെ വരയ്ക്കാനൊക്കെ സാധിക്കും അപ്പൊ എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ചിത്രം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം നമുക്ക് ഒരുപാട് പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കില് പ്രാക്ടീസ് ഇല്ലാത്തവര് ഒരുപാട് വരയ്ക്കുന്നുണ്ട് പക്ഷേ ആദ്യം അത്യാവശ്യം നല്ല പെര്ഫെക്ഷനിലൊക്കെ വരയ്ക്കുന്നുണ്ട് അപ്പൊ അതുപോലെ എല്ലാര്ക്കും പറ്റിയെന്നു വരില്ല അപ്പൊ എന്ന് വച്ചിട്ടുണ്ടെങ്കില് നമ്മളിതൊക്കെ ചെറുപ്പത്തിലേ ചെറിയ വര വര ഇങ്ങനെ വരയൊക്കെ അതായത് വരക്കുന്നയൊക്കെ ആള്ക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് അവരെ കൂടുതലായിട്ടും പിന്നെ പ്രചോദിപ്പിച്ചിട്ട് ക്ലാസ്സിലും കാര്യങ്ങളിലും ഒക്കെ വിട്ടിരുന്നെങ്കില് അവര് വലുതാവുമ്പോ നല്ല ഒരു ചിത്രകാരന് ആയിട്ട് മാറും ഇപ്പൊ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിക്കാത്ത കുട്ടികള് തന്നെ ഒരുപാട് വരക്കുന്നുണ്ട് നല്ല അടിപൊളി കുട്ടികളും കാര്യങ്ങളൊക്കെ അതായത് ഒരുപാട് കുട്ടികള് അടിപൊളി ആയിട്ട് വരക്കുന്നുണ്ട് അപ്പോ എന്ന് വച്ചിട്ടുണ്ടെങ്കില് പരിശീലനം പരിശീലനം ആണല്ലോ നമുക്ക് എല്ലാത്തിനും ഇതായത് നമ്മൾ നന്നായി പരിശീലിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നേ ഏതു ലെവലില് വേണമെങ്കിലും നമുക്ക് എത്താന് പറ്റും